ഏട്ടാ ഈ മാർക്കറ്റിൽ പുതിയ ഫ്രിഡ്ജും എസിയും വല്ലതും വന്നിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു ഗിഫ്റ്റിന് വേണ്ടീട്ട് ആണ് അപ്പോൾ അത്യാവശ്യം പവർ കുടിക്കാത്ത സാധനം ആവണം നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ആ ഫ്രിഡ്ജെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഫ്രിഡ്ജും എയർ കണ്ടീഷണറും നോക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ആവുമ്പോൾ അത്യാവശ്യം ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇപ്പോൾ എന്താ പറയുക ഈ മോഡൽ ഒക്കെ ഒന്ന് കാണിച്ചുതരുമോ ഞാൻ റേറ്റ് ഒരു അഞ്ചായിരം ആറായിരം ആ അല്ലെങ്കിൽ ഒരു പത്തായിരത്തിന് ആ റേഞ്ച് നോക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ സിംഗിൾ ഡോറാണ് നോക്കണത് ഡബിൾ ഡോർ ആവുമ്പോൾ കുറച്ചും കൂടെ കൂടില്ലേ ഓഫർ എത്ര കിട്ടുന്നുണ്ടാവും സിംഗിൾ ഡോർ ആവുമ്പോൾ എത്ര ആവും

എന്നാൽ ഡബിൾ ഡോറ് ഞാൻ ഇപ്പോൾ ഒരു എന്താ പറയുക കസിൻ്റ കല്ല്യാണത്തിനാണ് അവൻ പിന്നെ അത്യാവശ്യം അറിയുന്ന ആൾ ആണ് അവൻ പിന്നെ അവന് ഇപ്പോൾ മേടിക്കണ്ടേ മേടിച്ച് കൊടുക്കണ്ടേ നമ്മൾ അത്യാവശ്യം കുറേ പരിചയം ഉണ്ട് ഉണ്ടായിട്ട് നമ്മൾ ഒന്നും കൊടുത്തില്ലെന്ന് വെച്ചാൽ അത് ഒരു ഇത് ആവില്ലേ അപ്പോൾ ഡബിൾ ഡോർ തന്നെ എടുക്കാം നിങ്ങൾ ഇതിൽ എത്രയാ പത്ത് വർഷം അല്ലേ വാറണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്

അപ്പോൾ എൽജി നോക്കാം നമുക്ക് എൽജി ഇല്ലേ അത് അല്ലേ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഓടുന്നത് അത് ആവുമ്പോൾ സർവീസും സെൻ്ററും അടുത്ത് ആവും അല്ലേ ഇതിൽ ഇപ്പോൾ നിങ്ങൾ പവർ സേവിംഗ് മോഡലിന് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് നോക്കാം അത് ആവുമ്പോൾ നമുക്ക് ആവുമ്പോൾ എത്ര അത്യാവശ്യം കുറവ് ആവും അല്ലേ

ആ ഇത് ആവുമ്പോൾ ഇ എം ഐയും കിട്ടുമല്ലോ നമുക്ക് ആ എന്നാൽ അത് എന്നാൽ അത് നോക്കാം നോക്കാം അത് നോക്കാം

ഇല്ല പവറ് പോയാലും പ്രശ്നം ഒന്നും ഇല്ലല്ലോ അതിന്റെ ഇത് ഒക്കെ ഉണ്ടല്ലോ ഗ്യാരണ്ടി ഒക്കെ ഉണ്ടല്ലേ ആ